ആ ഇതാരാണ് ആ ഉണ്ട് ഉണ്ടപ്പ എന്താ വിളിച്ചത്

അ ആ ശരി ശരി ആ അ അ ആ നിങ്ങൾ കാസറോടെക്കാണൊ വരുന്നത് ഊട്ടിക്ക് വരെ പോവായിരുന്നോ അതെയാ അ ആ കസോടലാണെങ്കിൽ നമുക്ക് ഇവിടെ ബേക്കൽകോട്ട അതുപോലെതന്നെ ബീച്ച് അതെല്ലാം കാണാമായിരുന്നു പിന്നെ വളരെ വിചിത്രമായ ഒരു പാട് ക്ഷേത്രങ്ങളെല്ലാം ഉണ്ടല്ലോ വെള്ളത്തിലന്നെ വെള്ളത്തിലന്നെ കെട്ടി കിടക്കുന്ന പിന്നെ നമ്മളെ അനന്തപുരം ക്ഷേത്രങ്ങളെല്ലാം ഉണ്ടല്ലോ അതുപോലെ ദുർഗാ പരമേശ്വരി ടെംബിളുകൾ എല്ലാം ഉണ്ട് ഒരുപാട് മുസ്ലിം പള്ളികൾ ഉണ്ട് പിന്നെ വിചിത്രമായ കുറെ സ്ഥലങ്ങളെല്ലാം നമ്മൾ കാസർഗോഡ് ജില്ലയിൽ ഉണ്ട് അപ്പോൾ ആ ആ അത് ശരിയന്നെയാണ് അല്ല ഞാനത് ആരോടെങ്കിലും അതിനെക്കുറിച്ചി അനേഷിച്ചിട്ട് അത് വന്നപോലെ കൈകാര്യം ചെയ്യമായിരുന്നു അതിനെക്കുറിച്ചിട്ട് കൂടുതൽ അന്വേഷിച്ചിട്ടേ അ ഓക്കേ അ ഓക്കേ

അ ശരി ശരി ആ ഓക്കേ ആ അത് ശരിയന്നേ ആ അത് നമുക്ക് ഒരുപാട് പിന്നെ നമ്മളെ നമ്മളുടെ നാട്ടിൽ തന്നെ അറിയപ്പെടുന്ന കുറെ പിന്നെ ഡ്രൈവ് ട്രാവലിംഗിൻ്റെ ഡ്രൈവേഴ്സ് എല്ലാം ഉണ്ട് അപ്പം അവരോട് എല്ലാം ഒന്ന് അറിയുന്ന ആൾക്കാരോട് ഒന്ന് അന്വേഷിച്ചിട്ടെ ആ അതിനെക്കുറിച്ചിട്ടൊന്നു സംസാരിക്കാം കേട്ടാ ആ അപ്പം നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തെ ടൂറ് ആവുമ്പോൾ ഒരുപാട് ട്രാവലിംഗ് അലവൻസിൻ്റെ ഡിസ്കൗണ്ട് കിട്ടണം അതുപോലെ തന്നെ നമുക്ക് മറ്റു വാഹനത്തിലതിനകത്ത് നമുക്ക് താമസിക്കാൻ ഉള്ളുള്ള എടെല്ലാം കിട്ടണോല്ലോ നമ്മൾ സ്ത്രീകളായതുകൊണ്ട് ഇങ്ങനെ ടൂറ് പോവാൻ പറ്റൂലല്ലോ അപ്പം നമുക്ക് അതിനെല്ലാം യാത്ര സൗകര്യങ്ങൾ എല്ലാം വേണം ഓ ആ അതെ ആ ആ കൺഫോം ആക്കണോല്ലോ ആ സീറ്റുകൾ വേണമല്ലോ ആ ആ ആ അതെ അതെ അതെ ആ ആ ആ ആ അതെ ആ അതെ തോന്നുന്നത് അ ആ ആ ആ ഓക്കേ ആ ഞാൻ പറയാം എന്നാൽ ആ

അതെ ശരി ആ ചെയ്യാം ചെയ്യാം ആ ആ ആ ആലോചിക്കാം ആ ആ ആ ആ താങ്ക് യൂ ബായ് ബായ്